ആ ഹലോ ഇത് തോമസല്ലേ ആ ഞാന് പരിവാഹനിലൂടെ ഒരു വാഹനം വായ്പക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് താങ്കൾ വാഹന വായ്പ എടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഡെലിവറി സേവനങ്ങൾക്കായി ഒരു വാന് വാങ്ങണമെന്നതാണ് അപ്പോൾ വാഹന വായ്പക്ക് ബാങ്കുകളിലൊത്തിരി ഞാനപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീടാണ് അറിയുന്നത് പരിവാഹനിൽ കൂടി നമുക്ക് വായ്പ്പാ സൗകര്യം ലഭിക്കുമെന്നുള്ളത് താങ്കൾക്ക് എന്നെയൊന്ന് സഹായിക്കാൻ പറ്റുവോ താങ്കൾ വാഹനം വാഹനത്തിന് അപേക്ഷിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുത്തത് നമ്മുടെ എന്തൊക്കെ രേഖകളാണ് നമ്മള് ഈ വായ്പ എടുക്കാൻ നേരത്ത് എടുക്കാൻ സമയം സമർപ്പിക്കേണ്ടത് എത്ര ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് നമുക്ക് വായ്പ ലഭിക്കും അതുപോലെ ഈ ആർ ട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത് ഏത് ഉദ്യോഗസ്ഥരെയാണ് നമ്മള് സമീപിക്കേണ്ടത് ആദ്യ അപേക്ഷ അക്ഷയ മുഖേനയാണോ കൊടുക്കേണ്ടത് അതുപോലെതന്നെ നമ്മള് ഈടായിട്ട് ഈ വാഹന വായ്പ്പ എടുക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ വസ്തുവിൻ്റെ ആധാരം ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെയുള്ള എന്തേലും കൊടുക്കേണ്ടിയതുണ്ടോ അതുപോലെ എത്ര സി സി വാഹനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും പഴയ വാഹനങ്ങള് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുവോ പരിവാഹനിലൂടെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് വണ്ടിയുടെ ഏത് വണ്ടി എടുക്കുന്നതിൻ്റെ മെഡല് അങ്ങനെയുള്ള കാര്യങ്ങളെന്തെങ്കിലും കൊടുക്കേണ്ടിയത് ഉണ്ടോ അതുപോലെ ഈ പോർട്ടലിനെ കുറിച്ചൊന്ന് കൃത്യമായിട്ട് പറ പറഞ്ഞു തരാമോ കേരളാ ഗവൺമെൻറ്റിൻ്റെ വാഹന മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഇതാണല്ലോ പരിവാഹൻ പരിവാഹനിലെ ഏത് സൈറ്റിലാണ് നമ്മള് കയറി ഇതിനെക്കുറിച്ച് അപേക്ഷിക്കേണ്ടത് നമ്മുടെ ലൈസൻസ് ഇതിന് ബാധകമാണോ ഏതെല്ലാം ഡോക്യുമെൻറ്റ്സാണ് നമ്മള് കൊടുക്കേണ്ടിയുള്ളത് അതുപോലെ തന്നെ വ്യക്തികൾക്ക് സ്വന്തമായോ അതുപോലെ ഗ്രൂപ്പ് ചേർന്നോ ഒരു വാഹനം വാങ്ങാൻ പറ്റുമോ ഇതിൻ്റെ തിരിച്ചടവ് മാസം തോറുമുള്ള തിരിച്ചടവ് എങ്ങനെയാണ് ഏതു ബാങ്കുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അക്കൗണ്ടുള്ള ബാങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളോ അതുപോലെ തന്നെ എത്ര വയസ്സ് ഏജ് ലിമിറ്റാണ് ഈ വായ്പക്ക് പറയുന്നത് ഏജ് ലിമിറ്റുണ്ടോ വിദ്യാഭ്യാസ യോഗ്യത ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആധാറ് ലൈസൻസ് ഇവയുടെ ഒറിജിനലാണോ അതിൻ്റെ ഫോട്ടോകോപ്പിയാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അക്ഷയയിൽ ചെന്നാൽ ഏതൊക്കെ എല്ലാ അക്ഷയകളിലും ഇതിൻ്റെ സേവനം ലഭ്യമാണോ ഇതായി ഞാന് ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം താങ്കൾ കൃത്യമായ മറുപടി എനിക്ക് തന്നു വളരെ സന്തോഷമുണ്ട് ഞാൻ എന്തായാലും പരിപാവഹനിലൂടെ ഇത് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളുള്ള പക്ഷം ഞാൻ അങ്ങയെ ഒന്നുകൂടി വിളിക്കും അപ്പോൾ കൃത്യമായിട്ട് എന്നെയൊന്ന് സഹായിക്കുമല്ലോ അങ്ങയുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി എനിക്കു വേണ്ടി ചിലവഴിച്ചതില് ഒത്തിരി നന്ദിയുണ്ട് അങ്ങയുടെ നമ്പറ് ഞാൻ സേവ് ചെയ്ത് ഇട്ടേക്കാം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കില് വിളിച്ചോളാം ഓക്കെ താങ്ക്യൂ